എൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറയുന്നത് ആത്മവിശ്വാസ്യതയാണ് ഏത് കാര്യം ചെയ്യാനും ഏത് കാര്യവും ഒറ്റയ്ക്ക് മുൻനിന്ന് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഒരിക്കലും ആർക്കും വേണ്ടിയും കൂടെ ചെയ്യുവാനായി കാത്തിരിക്കാറില്ല ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യും ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാറില്ല സ്വന്തം കാര്യം നല്ല രീതിയിൽ തന്നെ കൃത്യമായി തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കും ഒരിക്കലും ഒരു കാര്യവും പിന്നേക്ക് നീക്കി വയ്ക്കാറില്ല ഇതുകൊണ്ടുതന്നെ പല സ്ഥലങ്ങളിലും മുന്നേറാൻ ഈ ഒരു കാര്യം കൊണ്ട് സാധിച്ചു ബലഹീനതയായി കാണുന്നത് ആൾക്കാരെ കൂടുതലായി സ്നേഹിക്കും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക എന്നതാണ് ആൾക്കാർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് വഴി എൻ്റെ പല സമയങ്ങളും നഷ്ടമാകുകയും എന്നാൽ അവരിൽ നിന്ന് തിരിച്ച് അതുപോലുള്ള പരിഗണന ലഭിക്കാതെ വരികയും ചെയ്യുന്നുണ്ട് ഇത് മനസ്സിനെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് കൂടുതല് നമ്മൾ പ്രതീക്ഷിക്കുകയും എന്നാൽ അത് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പലപ്പോഴും പല ഇതേ അതിജീവിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും എന്തോ വീണ്ടും ആ ഒരു സ്ഥലത്തിലോട്ട് വീണ്ടും എത്തുകയാണ് അതൊരു നല്ല ബലഹീനതയാണ് എൻ്റെ കോൺഫിഡന്റ് എൻ്റെ ബല ശക്തിയും ബലഹീനതയും തമ്മിൽ ബന്ധമുള്ളത് പോലെയാണ് ഞാൻ പലതും ചെയ്യും എങ്കിലും ഞാൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ കാത്ത് നിൽക്കാറുണ്ട് അവര് ഒപ്പം ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കാറുണ്ട് ഇതൊരു എൻ്റെ ബലഹീനതയെ കൂടുതൽ ബലഹീനയാക്കുകയാണ് ചെയ്യുന്നത്